ഞാന് പള്ളിയിൽ നിന്നെടുക്കുന്ന വിശുദ്ധരുടെ പുസ്തകം സാധാരണ വെയ്ക്കാറുണ്ട് അതിന്നതെന്നൊന്നുമില്ല എല്ലാം നമ്മൾ വിശുദ്ധരുടെ ആയതു കൊണ്ട് എല്ലാം തന്നെ വായിയ്ക്കാറുണ്ടത് എന്റെ മക്കൾ ഇവിടുന്നെടുത്ത് പള്ളിയിൽ നിന്നെടുത്തു കൊണ്ടു വരുന്ന പുസ്തകങ്ങളായിരുന്നു അപ്പം അവർ വായിച്ചിട്ടവിടെ വെക്കുമ്പം നമ്മളവരെ അതെടുത്തു വായിക്കും എല്ലാ ഇന്നതെന്നൊന്നുമില്ല എല്ലാ വിശുദ്ധരെയും പറ്റി നമ്മൾ ചിലരെ നമുക്കങ്ങ് ഒത്തിരി പ്രയോജനപ്പെട് ത്താറുണ്ട് അങ്ങനെ നമുക്കങ്ങനെ എന്താകണം അല്ലേ അവർ ജീവിച്ച രീതികളും അവരനുഭവിച്ച യാതനകളുമൊക്കെ നമ്മൾ വായിക്കാറൊക്കെ ഉണ്ട് പിന്നെ ഇന്നന്നും എടുത്ത് പറയത്തക്ക അങ്ങനൊന്നുമില്ല നമുക്കിപ്പം വിശുദ്ധരുടെ എന്നു പറയുമ്പം നമ്മൾ ഒന്നും വിടാതങ്ങ് വായിച്ചു പോകും എന്നൊക്കെ ഉള്ളൂ പിന്നെ ഒത്തിരി നമ്മൾ അവരേപ്പറ്റി ചിന്തിക്ക് ഇങ്ങനെ എന്ത് അവരെന്തു ത്യാഗം സഹിച്ചാണ് നമ്മൾ ഇങ്ങനെ അവർ വിശുദ്ധരായെന്നും അതിനേപ്പറ്റി നമുക്ക് നമ്മൾ ചിന്തിക്കാറുണ്ട് പിന്നേ നമ്മൾ കുറേയൊക്കെ ഇതു നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ആണോ നമുക്ക് ആഗ്രഹം ഉണ്ട് പക്ഷെ അത് എല്ലാ സമയവുമിപ്പം നമുക്കതൊന്ന് നടന്നൊന്നിരിക്കുകയില്ല എല്ലാ വിശുദ്ധരും ഒരു മാതിരിപ്പെട്ട വിശുദ്ധരെയും എല്ലാ പിന്നെ ഞാൻ പിള്ളേർ പള്ളിയിൽ നിന്നെടുത്തു കൊണ്ടു വരുന്ന പുസ്തകങ്ങൾ വായിച്ചു തീര്ക്കാറുണ്ട് അപ്പം അവർ കൊണ്ടു വന്നവർ വായിച്ചിട്ട് വെക്കുമ്പം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മളുമതെടുത്തു വായിക്കും ഇപ്പോൾ ഒരെണ്ണം വായിച്ചു കഴിയുമ്പം എന്നാൽ അടുത്തത് അടുത്ത വിശുദ്ധര അത് എങ്ങനെ അവരുടെ ജീവിത അനുഭവമറിയാമെന്നല്ലോയെന്നോര്ത്ത് നമ്മളങ്ങെടുത്ത് വായിക്കുന്നതേ ഉള്ളതെല്ലാതെ പ്രത്യേകിച്ചൊന്നും നമ്മൾ വായനശാലയിൽ പോകുകയോ അങ്ങനെ ഒരു ക്ലബ്ബിൽ അംഗമായിട്ടോ അങ്ങനെങ്ങും നമ്മളിതുവരെയും ചേര്ന്നിട്ടൊന്നുമില്ല പിന്നെ വിശുദ്ധരുടെ മാതൃക പിന്തുടരണം അങ്ങനെ നമ്മളേക്കൊണ്ട് സാധിക്കും എന്നുമുണ്ട് സാധിക്കാത്തതു കൊണ്ട് അങ്ങനെ ഓരോ വിശുദ്ധർ എങ്ങനെയാണ് ജീവിച്ചതെന്നും അവരെന്തു ത്യാഗം സഹിച്ചാണ് വന്നതെന്നും അങ്ങനെയൊക്കെ ഉള്ളൊരിതുള്ളതു കൊണ്ടു നമ്മൾ ഒത്തിരി അങ്ങനെ വായിക്കാറുണ്ട് പിന്നെ പല വിശുദ്ധരും നമ്മൾ എല്ലാവരും തന്നെ നമ്മൾ അറിയുന്നു അല്ലേ കേട്ട് പള്ളികളിലാണെങ്കിലും വായിച്ച് അല്ലേ അവർ അവരെ ഓരോ വിശുദ്ധരുടെയും പിന്നെ നൊവേനകൾ നട ക്കുമ്പോൾ ഓരോ അച്ചന്മാരും വന്നവരേപ്പറ്റി ഇങ്ങനെ പ്രസംഗിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ചിലത് അങ്ങനെയൊന്നുമല്ല ചിലനകത്ത് അവരുടെ ജീവചരിത്രമൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ അപ്പം നമ്മളൊത്തിരി അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട് ഇങ്ങനല്ലല്ലോ അത് അങ്ങനെയാണല്ലോ ഈ വിശുദ്ധ ഇങ്ങനെയായി തീരുന്നതിന്റെ കാരണം ഇതാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കാറുണ്ട് പിന്നെ അങ്ങനെ ഇതിനൊത്തിരി അങ്ങ് നമ്മൾ കൂടുതല് മുൻപത്തെ നോക്കിയാൽ നമ്മൾ ഏതാനും വിശുദ്ധരായിത്തീരത്തില്ല എന്നുള്ള ഒരിതുള്ളത് കൊണ്ടും പിന്നെ നമ്മ നമ്മൾ മനുഷ്യരല്ലേ അവരും മനുഷ്യരായിരുന്നു എങ്കിൽപ്പോലും അവർ നിഷ്ടിതെത്രൻ ഇതൊക്കെ നമുക്കിപ്പം നമ്മളേക്കൊണ്ടൊന്നും നടക്കത്തില്ല എന്നുള്ള ഒരിതുണ്ട് പിന്നെ അവർ ഇത്ര ത്യാഗം സഹിച്ചാണല്ലോ നമ്മുടെയിടയിൽ നമുക്കു വേണ്ടി ഇങ്ങനെ സഹിച്ചതും വിശുദ്ധയായിത്തീര്ന്നതും എന്നൊക്കെ ഓര്ക്കുമ്പം അവരേപ്പറ്റി ചിന്തിക്കാറുണ്ട് അല്ലാതെ വേറെ ഇതൊന്നും നമുക്കില്ല അങ്ങനെ പറയുമ്പം നമ്മൾ ഒത്തിരി എല്ലാ വിശുദ്ധരേ തന്നെ പുസ്തകങ്ങളും ഞാന് വായിച്ചിട്ടുള്ളയാളാണ്